ഞങ്ങള്

ഞങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഇവിടെ സ്ട്രക്ച്ചർ വരുന്നത്

ഞങ്ങൾക്ക് കുറച്ച് ടൗൺ ഏരിയ ആണ് ഞങ്ങള് പ്രിഫർ ചെയ്യുന്നത് ആ ആ ആ ഞങ്ങൾക്ക് കുറച്ച് ട്രഡീഷണൽ ടച്ച് വരുന്ന രീതിയുള്ളതാണ് നോക്കുന്നതിപ്പോൾ എത്രയാ റൂമ് രണ്ട് റൂമ് ധാരാളമാണ് ഞങ്ങൾക്ക് പിന്നെ എങ്ങനെയാണ് ഫീസ് ചെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എന്താണ് വരുന്നത് ആ സ്ഥലവും നോക്കുന്നുണ്ട് ഒരു നില ഓക്കേ സ്ക്വയർ ഫീറ്റ് എങ്ങനെയാണ്

ആ ഓക്കേ ഓക്കേ അത് ഒരു നാല് സെൻറ്റ് വെച്ചിട്ട്

ഇതിൻ്റെ അടിയില് കുറയില്ല

ആ ഓക്കേ

ഏയ് വേണ്ട വേണ്ട വേണ്ട ആ അത് ചെയ്യാൻ താൽപ്പര്യമുണ്ട്

വെറുതെ പ്ലോട്ട് ആയിരിക്കും അല്ലെ ആ ഓക്കേ ഞാൻ വിളിക്കാം ഞങ്ങള് നെക്സ്റ്റ് വീക്ക് പറയാം ആ ഓക്കേ ഓക്കേ ശരി